ഞങ്ങളുടെ പ്രദേശത്തും അതുപോലെ അതിൻ്റെ സമീപത്തായിട്ടുമൊക്കെ അത്യാവശ്യം എത്ര എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് കൃത്യം ഗവൺമെന്റ് ഹെൽത്ത് സെന്ററാണെങ്കില് നമ്മുടെ തൊട്ടടുത്ത് തന്നെ എനിക്ക് തോന്നി ഒരു മൂന്നെണ്ണത്തോളം ഈ പ്രദേശങ്ങളിലായിട്ടുണ്ട് അകന്ന് അകന്ന് അതുപോലെതന്നെ മറ്റ് ആശുത്രികളും ചെറിയ ആശുത്രിയാണെങ്കിലും തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ആശുപത്രിയും പിന്നെ ചെറിയ ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട് അതുപോലെതന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് കാരണം നമ്മൾ ഇപ്പം താമസിക്കുന്നത് അത്യാവശ്യം ആളുകളൊക്കെ ഒരുപാട് തിങ്ങി നിറഞ്ഞല്ല എന്നാൽ അത്യാവശ്യം ആളുകൾ ഒരുപാട് താമസിക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ത ഒരുപാട് ചെറിയ ചെറിയ ഹെൽത്ത് സെൻററുകളും ഹെൽത്ത് ക്ലിനിക്കുകളും അതുപോലെതന്നെ ചെറിയ ചെറിയ ആശുപത്രികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഇത് ഇവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്ററിന് അപ്പുറം തന്നെ പ്രധാനപെട്ട വലിയ അതായത് നമുക്ക് വലിയ ആവശ്യങ്ങളൊണ്ടെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും അതുപോലെതന്നെ അത് അതേ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ നിലവാരം ഉള്ള പ്രൈവറ്റ് ആശുപത്രികളും തൊട്ടടുത്ത് തന്നെ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവയുള്ളത്